ഹലോ ആ മേഡം ഹലോ ആ മേഡം ഇതൊരു പോളിസി ആയിട്ടാണ് വിളിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ അ മേഡം ഇപ്പോൾ ഒരു രണ്ട് വർഷത്തെ സ്കീമുണ്ടായിരുന്നു മേഡത്തിന് ഇപ്പോൾ കൂടാൻ താത്പര്യം ഉണ്ടോ എൽ ഐ സിയിൽ മേഡം ഇപ്പോൾ കുറിയ്ക്കൊക്കെ കൂടിയിട്ട് എത്രയായി മേഡം

മാസം എത്ര അടവാണ് മേഡം കുറിയ്ക്ക് ആണോ മേഡം ഞങ്ങളിത് വെറും മേഡം ഇത് ഒരു മാസം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് അടച്ചാൽ മതി മേഡം അഞ്ഞൂറ് രൂ ആ ഓക്കെ മേഡം ആ മേഡത്തിൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മേഡം വർക്കിങ് എന്തെങ്കിലും ഉണ്ടോ മേഡം ആണോ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും ആ പ ഇൻഷൂറോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ആണോ മേഡം എന്നാൽ എന്തായാലും അവരോട് കൂടാൻ പറയണം മേഡം ഇതൊരു നല്ലൊരു സ്കീമാണ് മേഡം നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ എൽ ഐ ഇതിൽ ചേർന്നിട്ടാൽ നിങ്ങളിനി ഒഴിവാകുകയാണെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ് ഒരു വർഷത്തിന് ഒരു വർഷം ആയിട്ടേ ഒഴിവാകാൻ പറ്റുകയുള്ളു ആ മാസം അഞ്ഞൂറ് വെച്ചിട്ട് അടച്ചാൽ മതി മേഡം നല്ലൊരു സ്കീമാണ് മേഡം ആ മേഡം എന്തായാലും നിങ്ങൾ കൂടണം മേഡം നല്ലൊരു സ്കീമാണ് മാസം അഞ്ഞൂറ് രൂപയല്ലേ വരുന്നുള്ളു

ആണോ മേഡം മേഡത്തിൻ്റെ പേരെന്താണ് ഓക്കെ മേഡം മേഡത്തിനെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ലേ ഓക്കെ മേഡം എന്തായാലും മേഡം കൂടണം കേട്ടോ ഓക്കെ ആ ഓക്കെ മേഡം താങ്ക് യൂ